ഇല്ല ഞാൻ ആരുടെ അടുത്തുനിന്നും അങ്ങനെ നൃത്തം പഠിച്ചിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയാസ് വഴി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് സോഷ്യൽ മീഡിയാസ് വഴി ഇപ്പം ഒരു പരിപാടി ഒക്കെ വരുമ്പം നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ചെയ്തത് നോക്കി അതുപോലെ പഠിച്ച് പരിപാടികൾ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അത് വെളിയിന്ന് ആരേലും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഇപ്പം നമ്മുടെ തന്നെ കുടുംബത്തിലെ ഒരു പരിപാടി വരുമ്പോൾ ഒരു കല്യാണം വരുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യാറുണ്ട് നൃത്ത സംവിധാനമെന്ന് പറയാൻ അങ്ങനൊന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനെ നൃത്തം ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടം ഉള്ള കാര്യമാണ് ഇപ്പോൾ ഇതുവരെ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ പഠിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ആരുടെയടുത്തും പോയി പഠിക്കാനുള്ളൊരു അവസരം ഇതുവരെയും കിട്ടീട്ടില്ല ഞാൻ തന്നെ ഇ എൻ്റെ കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ മുദ്രകൾ കാണിക്കുബം ഞാൻ അത് ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലാണ്ട് ഞാനങ്ങനെ വേറാരടുത്തും പോയി പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് നൃത്തം ചെയാനുള്ളൊരു കഴിവുണ്ട് എന്ന് എന്ന് തന്നെയാണ് എൻ്റെയൊരു വിശ്വാസം ഞാൻ ഇപ്പോൾ ഒരു പരിപാടി കഴിയുമ്പോൾ കുഞ്ഞിപ്പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുക ആണെങ്കിൽ ഞാനത് അവരെ പഠിപ്പിക്കാറൊക്കെ ഉണ്ട് എനിക്ക് നൃത്തം ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് ഒരു എക്സിർസൈസ്കൂടെ ഒരുകണക്കിന് പറഞ്ഞാൽ ഒരു വ്യായാമം കൂടെയാണ് നമ്മുടെ ശരീരത്തിന് നൃത്തം ചെയ്യാന്നുള്ളത് നൃത്തം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാതുപോലെ ശരീരത്തിന് ഉന്മേഷം നൽകാനും പറ്റിയൊരു നല്ലൊരു വഴിയാണ് നൃത്തം ചെയ്യാന്നുള്ളത് നൃത്തം നമുക്ക് ഒരാളുടെ അടുത്തുപോയി പഠിക്കണംന്നില്യ ഇപ്പോൾ നമുക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ട് നൃത്തം പഠിക്കാനാണെങ്കില്ലും ചെയ്യാനാണെങ്കിലും നമുക്ക് ഇപ്പം ടീ വി വഴി ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ നോക്കി സോഷ്യൽ മീഡിയാസ് വഴി ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാറ്റഗ്രാം ഫേസ്ബുക്ക് നമുക്കങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ട് ഡാൻസ് പഠിക്കാനും അതുപോലെ തന്നെ ചെയ്തു മറ്റുളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്ത് ഇടാനൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി അവസരങ്ങൾ ഉണ്ട്